ഇപ്പോൾ കർഷകര് കൂടുതലായിട്ടും മൃഗങ്ങളെ ആരോഗ്യ സംരക്ഷണം നൽകുന്നതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലായിട്ടും പ്രതിരോധ കു കുത്തിവെപ്പുകള് കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് പശുക്കൾക്കാണെങ്കില് നമ്മള് ഇടയ്ക്കിടയ്ക്ക് കുത്തിവെപ്പ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരവസ്ഥയുണ്ട് കാരണം കുളമ്പ് രോഗം എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട് അത് ഇങ്ങനെ സ്പ്രെഡായി കൊണ്ടിരിക്കും ഓരോ പശുക്കളിൽ നിന്ന് വേറൊരു പശുക്കളിലേക്ക് സ്പ്രെഡാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മള് കൂടുതലായിട്ടും ഓരോ പശുക്കൾക്കാണെങ്കിലും നമ്മള് കുത്തിവെപ്പ് കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാല് കുളമ്പ് രോഗത്തിൽ നിന്നൊക്കെ രക്ഷനേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പം പുതുതായിട്ട് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചർമ്മ മുഴ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ പശുവിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്പ ഇപ്പോൾ പശുവിനൊക്കെ വന്നതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു പശുവിൽ നിന്നിങ്ങനെ പകർന്ന് കിട്ടിയതാണ് അപ്പം കണ്ണൊക്കെ വീർത്ത് പൊട്ടി അങ്ങനത്തെ പല രീ ഭയങ്കര വൃ വൃത്തിഹീനമായിട്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെയുണ്ടായിരുന്നു ഭയങ്കര ബാക്കൊക്കെ പൊട്ടി ഭയങ്കര വൃത്തിഹീനമായിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം അതിന് നമ്മള് കുത്തിവെപ്പ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു എന്നിട്ടും ആ വൈറസ് ബാധിച്ച് പശുവിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കൂ കുഴപ്പമൊന്നുമില്ല നമ്മള് പച്ച മരുന്നുകള് കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡിയാക്കിയെടുക അങ്ങനെയൊക്കെയാണ് ചെയ്തത്